ഹലോ ആ പറഞ്ഞുകൊള്ളൂ ആ അതെ ക്ലിനിക്കാണ് എന്തായിരുന്നു പേരെന്തായിരുന്നു അഭിനവെന്നാണ് ഓക്കെ അഭിനവ് എന്താണ് പ്രശ്നമെന്താണ് അണപ്പല്ലിന്റെ അവിടെനിന്ന് വേദനയെടുക്കുന്നുണ്ട് ഓക്കെ പഴയ അതായത് ഇപ്പോളെത്ര വയസ്സായി ഒമ്പത് വയസ്സായിട്ടേയുള്ളൂ ഓക്കെ അവിടെ എന്തെങ്കിലും നല്ല ബലമുള്ള അതായത് എന്തെങ്കിലും കട്ടിയുള്ള ആഹാരമെന്തെങ്കിലും കഴിച്ചായിരുന്നുവോ

കഴിക്കാനും പറ്റുന്നില്ല ഓക്കെ ആ തുറക്കുമ്പോള് വേദനയാണ് ഓക്കേ അങ്ങനെയാണെങ്കില് ഉള്ളിലേക്ക് ക്യാവിറ്റീസ്സ് കയറിയിട്ടുണ്ടാകും അത് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും നീരെന്തെങ്കിലുമുണ്ടോ മുഖത്ത് ഓക്കെ പല്ല് ഇതിനുമുമ്പ് അങ്ങനെ അടർന്നുപോകുകയോ അങ്ങനെയെന്തെങ്കിലും ചെയ്തായിരുന്നുവോ

അങ്ങനെ കാണുന്നുണ്ട് അല്ലെ ആ ഓക്കേ അതിന് വേറെന്തെങ്കിലും പേയ്ൻ കില്ലറോ അങ്ങനെയെന്തെങ്കിലും കഴിച്ചായിരുന്നുവോ ആ ഓക്കെ അങ്ങനെ റിസ്ക്കെടുക്കാൻ നിന്നിട്ടില്ല ഓക്കെ ഓക്കെ പരമാവധിയില് കൂടുതലും ഉപ്പുവെള്ളം ഉപയോഗിക്കുക മേയ്നായിട്ട് അതെ ചെറിയ അതായത് ചൂട് തിളപ്പിച്ചാറിയ വെള്ളത്തില് ഉപ്പിട്ടിട്ട് എന്തുചെയ്യുക നന്നായിട്ട് വായ കുപ്ലിക്കുക കാരണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നീരോ അങ്ങനെയെന്തെങ്കിലും ഉണ്ടെങ്കില് അതെല്ലാം പോയ്ക്കോളും ഓക്കെ അത് അതുപോലെ അധികം വെയില് കൊള്ളരുത് അധികം വെയില് കൊണ്ടിട്ടുണ്ടെങ്കില് എന്തുചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടങ്കില് നീര് കൂടാൻ സാധ്യതയുണ്ട് പല്ലുവേദനയും കൂടും അതിനൊപ്പം മുഖത്ത് നീരുവെയ്ക്കുകയും ചെയ്യുന്നതായിരിക്കും ഓക്കേ അതിനി റൂട്ട് കനാല് ചെയ്യാന് പറ്റുമോയെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തുനോക്കാം അതെ ക്ലിനിക്കിലേക്ക് വരേണ്ടതായിട്ട് വരും അതിനുമുമ്പ് അപ്പോയ്ൻമെൻറ്റ് എടുക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കില് ഞാനിവിടെ രജിസ്റ്റര് ചെയ്തുവെയ്ക്കാം അപ്പോയ്ൻമെൻറ്റ് ചെയ്യുക ഓക്കെ അങ്ങനെയാണെങ്കില് നാളെ രാവിലെയൊരു പത്തരയ്ക്ക് ഞാന് അപ്പോയ്ൻമെൻറ്റ് ഫിക്സ് ചെയ്യാം ആ ഒരു ടൈമാകുമ്പോള് എത്താന് പറ്റില്ലേ ഓക്കെ അധികം കട്ടിയുള്ള ഭക്ഷണമൊന്നും കഴിക്കാന് നില്ക്കേണ്ട ഓക്കെ അതുപോലെ ഓവര് ചൂടുള്ള ഭക്ഷണവും കഴിക്കരുത് ഓക്കെ നമുക്കിവിടെ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പല്ലിന് ചെറിയ കേട് മാത്രമേയുള്ളൂവെങ്കില് നമുക്ക് വേണമെങ്കില് അത് അടയ്ക്കാവുന്നതാണ് അതേസമയം ഉള്ളിലേക്ക് ഇതായിട്ടുണ്ടെങ്കില് നമുക്ക് റൂട്ട് കനാല് ചെയ്യേണ്ടിവരുമെന്നാണെങ്കില് അങ്ങനെ ചെയ്യാം ഓക്കെ ഇല്ലെങ്കില് അത് കുഴപ്പമില്ല ഇനിയും പല്ല് എന്തായാലും വരാനുണ്ട് പത്തൊമ്പത് വയസ്സല്ലേ ആയിട്ടുള്ളൂ നമുക്ക് വേണമെങ്കില് അത് പറിച്ചുകളയണമെങ്കില് അങ്ങനെ ചെയ്യാം

ആ ഓക്കെ വേറെയെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതല്ലാതെ പല്ല് കമ്പിയിടണമെന്നുണ്ട് എന്തായാലും ഇത് മാറാതെ നമുക്ക് വേറെയൊന്നും ചെയ്യാന് പറ്റില്ല കാരണം മെയ്നായിട്ട് ക്ലിപ്പിടുമ്പോള് നമുക്ക് അണപ്പല്ലാണ് മേയ്നായിട്ട് നമ്മള് കമ്പിയിടുമ്പോള് ടൈറ്റ് ചെയ്യണമെങ്കിൽ അണപ്പല്ലിനാണ് നമ്മള് മേയ്നായിട്ട് ചെയ്യുക അപ്പോള് അണപ്പല്ലിന് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെങ്കില് ഈ ടൈമില് ചെയ്യാതെയിരിക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്കെന്തായാലും കുഴപ്പമില്ല അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് എന്തായാലും നാളെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോള് ഞാന് പറഞ്ഞതുപോലെ ആ ടൈമിനൊന്ന് എത്തുകയാണെങ്കില് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം ഓക്കേ ഞാനെന്തായാലും ഇവിടെ അപ്പോയ്ൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ രാവിലെ ചിലപ്പോള് ഓഫീസില് നിന്ന് വിളിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യൂ